ഞാനെത്ര നേരമായി ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് നിങ്ങളെന്താണ് ഇത്ര നേരമായിട്ടും എന്താണ് എത്തിക്കാത്തത് നമ്മള് ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ ഓർഡർ ചെയ്യുന്നത് എന്ത് റീസൺ കൊണ്ടാണ് ഇത്ര നേരമായിട്ടും എനിക്ക് ഡെലിവറി കിട്ടാത്തത് എന്ന് എനിക്കറിയണം ഞാന് കുറെ അരമണിക്കൂറിന് മുകളിലായി ഇവിടെയിങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നു അപ്പം എന്താണ് എത്രയും വേഗം എന്ന് വെച്ചാൽ എത്രയും വേഗം എനിക്ക് ഡെലിവറി എത്തിക്കണം എന്താണ് ഇത്രയും നേരം വൈകാനുള്ള കാരണം അതെനിക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു തരികയും വേണം